സാധാരണ വാട്ടർ ബിൽ എനിക്ക് നൂറ്റിയൻപതൊക്കെയാണ് വരാറുള്ളത് ഇപ്രാവശ്യം എനിക്ക് മുന്നൂറിന് മേളിൽ വാട്ടർ ബിൽ വന്നു ഞാൻ അതപ്പം പഴയ ബില്ലുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ എല്ലാം നൂറ്റമ്പതിന് താഴെയാണ് അറിയാൻ കാണാൻ സാധിച്ചത് പക്ഷേ ഈ പ്രാവശ്യം മുന്നൂറിന് മേളിൽ വന്നത് എന്താണെന്ന് അറിയില്ല ഞാൻ അത് വാട്ടർ അതോറിറ്റിയിൽ കംപ്ളയിൻറ് ചെയ്തു കംപ്ലയിൻറ് ചെയ്തതിനനുസരിച്ച് ഒന്നുകിൽ മീറ്ററിൻ്റെ കംപ്ലയിൻറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറാണെന്ന് ഉള്ള രീതിയിൽ ഞാൻ അത് അവിടെ കംപ്ലയിൻറ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല കാരണം എന്തെന്നു ചോദിച്ചാൽ അത് നൂറ്റിയമ്പതിന് സാധാരണ ഞാൻ അയയ്ക്കയുള്ളൂ അത്രേ വെള്ളം സാധാരണ ഉപയോഗിക്കാറുള്ളൂ പിന്നെ എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ബിൽ വരാനായിട്ട് ഇടയായത് ഇനി വാട്ടർ കണക്ഷന് എന്തെങ്കിലും കംപ്ലയിൻറോ നമ്മുടെ മീറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻറോ ബുദ്ധിമുട്ടോ ആയിരിക്കും ഞാൻ ഏതായാലും അവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അവർ അത് വന്ന് ഒന്ന് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് എൻ്റെ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാനായിട്ട് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സാധാരണ എനിക്ക് വരാറുള്ളതല്ല ഇതെന്തോ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല